ഞാനിവിടെ പറയാൻ പോകുന്നത് നവ കേരള സദസ്സിനെ കുറിച്ചാണ് നവ കേരള സദസ്സ് എന്ന് പറയുമ്പോൾ കാസർഗോഡ് തുടക്കം കുറിച്ച് തിരുവനന്തപുരം അവസാനിക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ചീഫ് സെക്രട്ടറീം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഓരോ നിയോജക മണ്ഡലത്തിൽ നേരിട്ടെത്തി ജനങ്ങളുടെ പരാതിയും കേട്ട് അതിലെ പരിഹാരവും ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് പറയുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ജനങ്ങളെ അഭിപ്രായങ്ങൾ നേരിട്ട് കേട്ടും അതിനെ പരിഹാരം ആസൂത്രണം ചെയ്തും പിന്നെ ഭാവിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലെ നേരിട്ടറിഞ്ഞു നേരെ നേര് ജനങ്ങളുടെ നേരെ ജനങ്ങളെ അറിയിക്കാനുള്ള അവസരമാണ് ഈ നവ കേരള സദസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ നവംബർ പതിനെട്ട് കാസർഗോഡ് തുടങ്ങി ഡിസംബർ ഇരുപത്തി മൂന്ന് തിരുവനന്തപുരം വരെ അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അതിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ പരാതി കേട്ട് അതിൻ്റെ പരിഹാരം കണ്ടെത്തുക എന്നതാണ് അതിൽ പ്രധാനമായും അവർ സുരക്ഷ പെൻഷൻ അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് അതി ദാരിദ്ര നിർമ്മാർജ്ജനം എന്നിവയെ കുറിച്ചാണ് കൂടുതലായും സർക്കാർ ജനങ്ങളോട് സമ്പർക്കത്തിലൂടെ ജനങ്ങളെ അറിയിക്കുകയും അവരെ പരാതി കേട്ടതും പിന്നെ പിന്നെ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഓരോരോ കാര്യങ്ങൾ കേരളത്തിലെ ദോഷവും കേരളത്തിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോഴുള്ള ദോഷവും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ ഈ സ നവ കേരളാ സദസ്സിലൂടെ അവർ ജനങ്ങളിലേക്കറിയിക്കുകയും അവരെ തിരിച്ചും ഇതുപോലെ ജനങ്ങളുടെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായവും എത്തിക്കാനുള്ള ഒരു സദസ്സായിട്ടാണ് ഈ നവകേരള സദസ്സ് സർ പിണറായി സർക്കാർ കൊണ്ടു വന്നത്